ഇന്ത്യയിലെ ഭക്ഷണങ്ങളെന്ന് പറയുമ്പം പല രീതിയിലുണ്ട് ഭയങ്കര ഡൈവേസിറ്റി ആണ് ഇന്ത്യയിലെ ഭക്ഷണത്തെ കുറിച്ച് പറയുക ആണെങ്കിൽ കുറേ പേര് ഇപ്പം നോർത്ത് ഇന്ത്യൻസിലോട്ട് പോയിക്കഴിഞ്ഞാൽ ചപ്പാത്തി പരിപ്പു ചാറ് അതൊക്കെ ആയിരിക്കും കേരളാ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ പാലപ്പം ദോശ സാമ്പാർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം വരുന്നത് അപ്പം ദോശ സാമ്പാർ ഇവിടെ ആണെങ്കിലും കേരള സൈഡിൽ ഇങ്ങോട്ട് കേരളേയിലൊക്കെ ആണെങ്കിലും ചപ്പാത്തിയൊക്കെ യൂസ് ചെയ്യാറുണ്ട് ആൾക്കാർ എന്നാലും അവർ കൂടുതൽ ഇഷ്ടം അരി ആഹാരങ്ങളോടാണ് താല്പര്യം അപ്പത്തേക്ക് നോർത്ത് ഇന്ത്യൻ സൈഡ്സിൽ ആണെങ്കിൽ വേറെ രീതിയാകും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുമ്പം ഏത് സാധനത്തിന് ആണെങ്കിലും സ്പൈസസ് ചേർക്കാൻ ഭയങ്കര ആഗ്രഹമാണ് അതുകൊണ്ട് നമുക്ക് സ്പൈസസ് ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒരു വസ്തുവാണ് കാരണം ഏലക്ക ജീരകം ഇഞ്ചി അതെ പച്ചമുളക് കുരുമുളക് പട്ട അതെല്ലാം എല്ലാ സാധനങ്ങളും നമ്മൾ എന്ത് കറി വച്ചാലും അതു ഉപയോഗിക്കാതിരിക്കത്തില്ല അതാണ് മെയ്ൻ ആയിട്ടും നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഇപ്പം ഏത് കറിയാണേലും ഇപ്പം ഇപ്പം സാമ്പാർ ഉണ്ടാക്കാനാണെങ്കിലും മസാലപ്പൊടികളൊക്കെ ചേർക്കാറുണ്ട് സാമ്പാർ പൊടി എന്ന് പറഞ്ഞാൽ ഉലുവ അങ്ങനെയുള്ള ഉലുവയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കായം അതൊക്കെ ചേർത്ത് സാമ്പാർ പൊടി തയാറാക്കാറുണ്ട് പിന്നാണെ ഇറച്ചിക്കറിക്ക് ഇറച്ചി അങ്ങനെയുള്ള കറികൾകൊക്കെയാണെങ്കിലും ഇങ്ങനത്തെ മസാലകളൊക്കെ ചേർക്കാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മസാലയൊക്കെ ഭയങ്കര ഇമ്പോട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഇവിടെ അപ്പോൾ ഇന്ത്യയിൽ ചില നോർത്ത് ഇന്ത്യൻ സൈഡ്സിൽ റോ ആയിട്ടൊക്കെ കഴിക്കുന്നവരുണ്ട് എന്നാലും കൂടുതലും സ്പൈസസ് ചേർത്ത് കഴിക്കുമ്പോഴാണ് അതിന്റെ രുചി നമുക്ക് ശരിക്കും ആസ്വാദ്യകരമാകുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇഷ്ടമുള്ളത് പൊറോട്ടയും ചില്ലി ചിക്കെൻ അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെയാണ് അതാകുംപ്പോൾ ചില്ലി ചിക്കനാകുമ്പോൾ ടൊമാറ്റൊ സോസക്കെ ഒത്തിരി ഇട്ട് ചിക്കെന് നല്ല സ്പൈസസൊക്കെ കിട്ടും പൊറോട്ടയാണെ തന്നെ നല്ല രീത്യിലൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് നല്ല സോഫ്റ്റായിട്ടൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പൊറാട്ടയും ചില്ലിചിക്കെനുമാണ് എനിക്ക് ഇഷ്ടം അപ്പോൾ ഇന്ത്യയിൽ ഡൈവേസിറ്റിയാണ് പല രീതിയിൽ ഫുഡ്ഡുണ്ടാക്കുന്നവരുണ്ട് കേരള സൈഡിലാണെങ്കിലും ഇഡലി ദോശ ചമ്മന്തി സാമ്പാർ പരിപ്പ്ചാർ ചപ്പാത്തി അരിയാഹാരങ്ങളോടാണ് ഇന്ത്യയിലുള്ളവർക്ക് കൂടുതൽ ഇഷ്ടം താൽപര്യം